എനിക്ക് ഇടയ്ക്ക് നമ്മുടെ വീട്ടിക്ക് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ നേരം കൊണ്ട് ഒരു ഹോം തിയേറ്ററ് സെറ്റപ്പ് ആക്കണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഉണ്ടായിരുന്നു നല്ലൊരു കമ്പനിയുടെ അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ഉള്ള ആ ഒരു കമ്പനിയുടെ ഹോം തിയേറ്റർ തന്നെയാണ് മേടിച്ചത് നല്ല രീതിയില് സിക്സ് സിക്സ് സിക്സ് ഇൻ വണ്ണാണ് മേടിച്ചത് അപ്പോൾ നല്ല എന്താ പറയുക നല്ല റിവ്യൂ തന്നെയാണ് പറയാനുള്ളത് സൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അത്യാവിശ്യം നല്ല ഒരു തീയേറ്റർ മോഡല് തന്നെയാണ് നമുക്ക് ഒരു സെറ്റപ്പ് ആക്കാം അപ്പം സിനിമയൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്